ഇന്ത്യൻ മാധ്യമങ്ങളെക്കുറിച്ചൊക്കെ പറയാനുള്ളത് എന്താണ് എൻ്റെ പേഴ്സണായിട്ടുള്ള അഭിപ്രായം ഒട്ടും നല്ല രീതിക്കല്ല അവരിപ്പം പ്രവർത്തിക്കുന്നത് ഒന്ന് ഒന്നുങ്കിൽ രാഷ്ട്രീയക്കാരുടെ ബേസിൽ അല്ലെങ്കിൽ മതങ്ങളുടെ ബേസിലൊക്കെയാണ് പത്രങ്ങൾ പത്രങ്ങളായാലും ന്യൂസായാലും അവരുടെ രീതിക്കാണ് പോകുന്നത് അല്ലാത്ത ഇത് പത്രം വായിക്കുന്ന ജനങ്ങൾക്ക് നല്ല നല്ല ഇൻഫോർമേഷൻ അവർക്ക് വേണ്ട നന്മകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പത്രത്തിൽ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ എന്നും രാവിലെ പത്രമെടുത്ത് ബായിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവെ ഉള്ളു അതിനൊരു പോസിറ്റിവ് നമുക്ക് കണ്ടെത്താനില്ല ഫുൾ ചൂടുള്ള വാർത്താന്ന് പറഞ്ഞിട്ട് പലരെപ്പറ്റി ഗോസിപ്പ് പറയണതും ഇല്ലാത്ത കാര്യങ്ങൾ പറയണതും എന്താണ് പിന്നെയാണെങ്കിൽ എന്താണ് കുറെ അങ്ങനത്തെ കുറെ കുറെ കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ എലക്ഷനായത് കൊണ്ട് ഇപ്പം മിക്ക പത്രങ്ങളിലും എലക്ഷനെ പറ്റിയിട്ടെ ഉള്ളു അത് ഓരോരുത്തരും ഓരോരുത്തരെ സ്വാധീനിച്ച് ഓരോ പത്രക്കാരെ പ്രവൃത്തികൾ ചോദിച്ച് അവരുടെ വാർത്തകളാണ് കാണിക്കുന്നത് അല്ലാതെ ഈ ഒരു പ്രശ്നം നടന്നാൽ ആ പ്രശ്നത്തിന് സോൾവ് ചെയ്യാനുള്ള രീതിക്കൊന്നും പത്രക്കാരൊന്നും ചെയ്യുന്നില്ല എന്തോരഭിപ്രായം വച്ച് പറയാണെങ്കിൽ ഓരോന്നും ഒട്ടും ഒരു കാര്യത്തിലും നല്ല രീതിക്കല്ല അവർ ചെയ്യുന്നത് പിന്നെ ഓരോന്ന് കാര്യത്തെ അവർ ഏതൊക്കെ രീതിയിൽ വഴി തിരിച്ച് ജനങ്ങളെത്തിക്കാം അങ്ങനെയാണ് ഇപ്പോഴത്തെ ന്യൂസ് പേപ്പറായാലും മീഡിയ ആയാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രശസ്തനായ